ഡോക്ടർമാരായാലും നേഴ്സുമാരായാലും ഈ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ആരായാലും എൻ എനിക്കിവിടെ തോന്നിയത് എൻ്റെ ഗ്രാമങ്ങളില് എൻ്റെ പ്രദേശത്ത് ഇവര് നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം അല്ലങ്കിലൊരു വെല്ലുവിളിയായിട്ടെനിക്ക് തോന്നിയത് സ്ഥലം മാറ്റലാണ് ഇവർക്ക് ഇവരൊരു ഗ്രാമത്തില് അല്ലങ്കില് ഒരു പ്രദേശത്ത് വന്ന് പ ജോലി ചെയ് മര്യാദക്ക് ജോലി ചെയ്ത് അവര് അവിടുള്ള നാട്ടുകാരുമായിട്ട് ഇടപഴകി ജോലി ചെയ്ത് വരുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു ഡോക്ടറ് പേഷ്യൻറ്റ്ന്ന് പറയുമ്പോൾ ഒരു സൗഹൃദം അവിടൊണ്ടായി ഉണ്ടായി വരികയാണ് ആ സമയത്തായിരിക്കും ഒരു ഒരു വർഷമോ അല്ലങ്കിൽ ഒര് ആറ് മാസമോ കഴിഞ്ഞ് പെട്ടന്നിവരെ വേറൊരു സ്ഥലത്തേക്ക് എന്താവുക സ്ഥലം മാറ്റുക അപ്പോൾ അവർക്കത് അവിടെ അവിടെ പോയിട്ടത് അവർക്ക് ഡോക്ടർമാർക്കായാലും ആർക്കായാലും ഒരു ഇഴകിച്ചേരാൻ നാടുമായിട്ട് ഇഴകിച്ചേരാൻ ജനങ്ങളുമായിട്ട് ഇഴകിച്ചേരാൻ ഭയങ്കര ഒരു വെല്ലുവിളിയാണ് അപ്പം അതൊരു പ്രധാന വെല്ലുവിളിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നേ അവരുടെ ചികിത്സയൊക്കെ ഇപ്പത്തെ രീതിയില് നമ്മടെ കേരളത്തില് വളരെ നല്ല നിലവാരത്തിലാണ് അതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്